ഇന്ത്യയിലെ തന്നെ ജനപ്രിയമായിട്ടുള്ള കായിക വിനോദങ്ങളേതൊക്കെയെന്നു ചോദിച്ചുകഴിഞ്ഞാൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഹോക്കി തന്നെയാണ് നമ്മളെ ഇന്ത്യയിലെ ദേശീയ കായികംന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോക്കിതന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് ഹോക്കി തന്നെയാണ് പിന്നെ ക്രിക്കറ്റുണ്ട് ഫുട്ബോള് പിന്നെ കബഡി പല രീതീലുള്ള കളികള് കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ കൂടുതലായിട്ടും ഇപ്പോന്നു പറഞ്ഞുകഴിഞ്ഞാല് ലോകകപ്പിൻറ്റെ സീസണൊക്കെയാണ് അതായത് ക്രിക്കറ്റില് ലോക കപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നോണ്ടിരിക്കയാണ് അപ്പം ഇന്ത്യ മൂന്നെണ്ണത്തില് വിന്നിങ് ചെയ്തിരിക്കുന്നുണ്ട് അതായത് പാക്കിസ്ഥാനുമായിട്ട് ഈ അടുത്തുള്ള കളിയിൽ അത്യുഗ്രൻ വിജയം കാര്യങ്ങളൊക്കെ നേരിട്ടു കൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള കായിക വിനോദങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ കായികതാരങ്ങൾന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഫുട്ബോളിൽ തന്നെ എടുക്കുകയാണെങ്കിൽ സുനിൽ ഛേത്രി സഹൽ അബ്ദുൾ സമദ് അങ്ങനെയുള്ള കളിക്കാരും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ഇന്ത്യൻ നായകനായിട്ടുള്ള നിന്നുള്ള ഐ എം വിജയൻ നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ തൃശ്ശൂർ ഉള്ള ആളാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അപ്പോൾ പുള്ളിയൊക്കെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിയില് ഫുട്ബോള് കളിച്ചിട്ട് വരുന്നതാണ് പിന്നേന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ താരങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ക്രിക്കറ്റില് വീരാട് കോഹ്ലി രോഹിത് ശർമ്മ എം എസ് ധോണി സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ പല രീതീലുള്ള ആൾക്കാരൊക്കെയുണ്ട്